മലയിടുക്ക് എന്നർഥമുള്ള ഇടുക്ക് എന്ന വാക്കിൽ നിന്നാണ് ഇടുക്കി എന്ന പേര് ഈ ജില്ലയ്ക്ക് വന്നത് പിന്നെ ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി തൊടുപുഴ പീരുമേട് എന്നീ അഞ്ച് താലൂക്കുകളാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലുള്ളത് ജില്ലയുടെ മുൻ ചരിത്രം അത്ര വ്യക്തമല്ല പുരാതന കാലഘട്ടത്തെ പറ്റിയും വേണ്ടത്ര തെളിവുകള് ലഭിച്ചിട്ടുമില്ല പിന്നെ മലനിരകള് കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള നിലവറകള് ശവക്കല്ലറകള് സ്തംഭങ്ങള് കല്ല് കൊണ്ടുള്ള കുഴിമാടങ്ങള് മുതലായവ ആ മെഗാലിത്തീക് കാലഘട്ടത്തിനെ ഓർമപ്പെടുത്തുന്നു പിന്നെ ദേവികുളം താലൂക്കിലെ അഞ്ചുനാട് വാലേലിയം മറയൂർ വണ്ടിപ്പെരിയാറിനടുത്തുള്ള തേങ്ങാക്കൽ ബൈസൺ വാലി തൊണ്ടാർമലയും മുതലായ മേഖലകളില് സംസ്ഥാന പുരാവസ്തു വകുപ്പ് നടത്തിയ ഉൽഖനനങ്ങൾ ചരിത്രാതീത കാലത്തുണ്ടായിരുന്ന സംസ്കാരത്തെ പറ്റി വ്യക്തമായ സൂചന നമുക്ക് നല്കുന്നുണ്ട് ഈ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ ജില്ലയ്ക്ക് പുരാതന കാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടത്തിലുണ്ടായിരുന്ന പ്രാധാന്യത്തിലേക്കാണ് കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടത്തിൽ കേരളത്തിലെ മറ്റ് എല്ലാ ജില്ലകളെക്കാളും മുൻപിലായിരുന്നു ഇടുക്കി